ഓക്കെ മാം എന്തായിരുന്നു അപ്പം മാമിന് വർക്ക് ചെയ്യുന്നതാണോ ആ എത്ര ഇൻകം എത്രയുണ്ട് മന്ത്ലി ഓക്കെ നയൻ ലാക്ക് റുപ്പീസ് ഉണ്ടല്ലേ ഓക്കെ മാം നമുക്ക് കാർ എടുക്കുന്നതിന് ഇവിടെ നമുക്ക് ലോൺ അലൗഡ് ആണ് അപ്പം നിങ്ങൾ എത്ര ലക്ഷം രൂപേൻ്റെ കാർ ആണ് എത്ര എമൗണ്ടിൻ്റെ കാർ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് വേണ്ടത് നമുക്കിതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം അപ്പം മാമിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് അതായത് എത്ര രൂപ സാലറി ഉണ്ടെന്നുള്ളതിന്റെ ഒരിത് വേണം ഓക്കെ അത് വേണം പിന്നെ പാൻ കാർഡ് വേണം നമുക്ക് അൻപതിനായിരം രൂപേൻ്റെ മേലോട്ടുള്ള ഏത് ഇടപാടിനും നമുക്ക് പാൻ കാർഡ് മസ്റ്റ് ആണ് പാൻ കാർഡ് ഉണ്ടോ മാമിന് പാൻ കാർഡ് ഉണ്ടോ ഓക്കെ പാൻ കാർഡ് വേണം പിന്നെ സാലറി സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് പിന്നെ എന്തായിരുന്നു നിങ്ങളുടെ ആധാർ കാർഡ് ആധാർ കാർഡ് ഒറിജിനൽ കൊണ്ട് വരണം പിന്നെയൊരു നാല് ഫോട്ടോ ആ ആ ഓക്കെ മാമിൻ്റെ പേരിൽ തന്നെയല്ലേ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാർ ഇപ്പം നമുക്ക് പലിശ നാല് ശതമാനം ഒൻപത് ശതമാനം പന്ത്രണ്ട് ശതമാനം ഇരുപത്തിനാല് ശതമാനം ആ ഒരു രീതിയിലാണ് നമുക്ക് പലിശ ഉള്ളത് അപ്പം നികുതി ചീട്ട് കൊണ്ടു വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇളവുണ്ടാവും എത്ര വർഷം കൊണ്ടടച്ച് തീർക്കുന്ന ഓരോ നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കുമ്പോൾ ഓരോരുത്തർ ഓരോ ഇത് പറയും സജഷൻ ഉണ്ട് ഇങ്ങനെയോരോ ഇതുണ്ട് നാല് വർഷം കൊണ്ടും പത്ത് വർഷം കൊണ്ടും അടച്ച് തീരുന്ന ഓരോ സ്കീമുകളുണ്ട് അപ്പം അങ്ങനെ കുറേ സ്കീം ഉണ്ട് അപ്പം മാം ഒരു കാര്യം ചെയ്യൂ മാം വരുന്ന ദിവസം നമുക്കത് കൂടുതലായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം അപ്പം വര് വന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റും നമുക്ക് അന്ന് തന്നെ പിന്നെ അത് സാങ്ഷൻ ആവാൻ ചിലപ്പോൾ രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ സാങ്ഷൻ ആവും നമ്മൾ കൊടുത്ത് കഴിയുവാണെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സാങ്ഷൻ ആവാനുള്ള ഇതുണ്ട് അപ്പം ആ നിങ്ങളെത്രയും നേരത്തെ വരുവാണെങ്കിൽ അത്രയും ഇത് വേണമെങ്കിൽ നാളെ പോരൂ അപ്പോൾ നാളെ വരുവാണെങ്കിൽ നമുക്ക് മൺഡേ ട്യൂസ്ഡേ ആ ഒരു ഇതിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും റെഡി ആയി കിട്ടും പ്രൊസീജ്യർ ഉണ്ട് നമ്മൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഇതാക്കണ്ടേ കാരണം എത്ര എമൗണ്ട് ആണ് നിങ്ങളിപ്പം ഹ്യൂജ് എമൗണ്ട് ആണ് എടുക്കുന്നതെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ വെരിഫൈ ചെയ്യണ്ടേ നമ്മൾ കോഴിക്കോട് തന്നെ മ് മ് ബസ് സ്റ്റാൻഡിൻ്റെ അത്രേയൊള്ളേ മ് മ് വന്നിട്ട് നമുക്കെന്തായാലും സംസാരിച്ചിട്ട് അതിനെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം വരുമ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊന്നെടുക്കാൻ മറക്കരുത് കേട്ടോ കാരണം ഫോട്ടോയൊക്കെ മസ്റ്റ് ആണ് നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ ഫോട്ടോ ഒട്ടിക്കാനുണ്ട് പിന്നെ വേരിഫൈ ചെയ്യാനുണ്ട് അപ്പം പിന്നെ അതിലും ഫോട്ടോയിലും സൈൻ ഒക്കെ വേണം അപ്പം പിന്നെ നിങ്ങൾ മാം തന്നെ വരുന്നതായിരിക്കും ഉചിതം ഓക്കെ താങ്ക്യൂ